നമ്മൾ ആദ്യം ചിത്രത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ ചിത്രം വരയ്ക്കുന്നതിനു മുൻപ് ചെയ്യാം നമുക്ക് അതിൻ്റെ വിഡ്ത്തും എല്ലാ ലെംഗ്ത്തെല്ലാം മനസ്സിലാക്കി നമ്മളതിൻ്റെ ബ്രൈറ്റ്നസ്സ് വരുന്നതും ബ്രൈറ്റ്നസ്സ് ഇല്ലാത്ത സ്ഥലമൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ചിത്രം വരയ്ക്കുന്നതിനു മുമ്പ് നമ്മൾ ഓൺലൈനിൽ ഒരു ആപ്പുണ്ട് ഗ്രിഡ് അതുവഴി നമ്മൾ നമ്മുടെ പോർട്രൈറ്റാണ് അത് അയക്കേണ്ട ചിത്രം നമ്മൾ ഗ്രിഡിലിട്ടിട്ട് നമ്മൾക്ക് അത്രയും ഗ്രിഡ് നമ്മൾ പേപ്പറിലേക്ക് സ്കെച്ച് ചെയ്ത് ഓരോ ഗ്രിഡിലും വരുന്ന ഓരോ കള്ളിയിലും വരുന്ന ഇത് നമ്മൾ മെഷറ് ചെയ്ത് അതുപോലെതന്നെ വരച്ച് നമ്മള് ഔട്ട്ലയിനെല്ലാം പിന്നെ ഗ്രിഡ് ഇതിൽ നിന്ന് മായിച്ച് നമ്മൾ ഔട്ട്ലൈൻ കൊടുത്ത് പിന്നെ പിന്നെ ഡാർക്കിലേക്ക് കൊണ്ടുവന്ന് അതുപോലെയാണ് നമ്മൾ ചിത്രം വരയ്ക്കാറ് ചിത്രം എന്താ പറയുക ഇങ്ങനെയാണ് ചിത്രം നമ്മൾ പൂർത്തിയാക്കാറ് പിന്നെ നമ്മൾ എന്ത പറയുക ഡാർക്ക് ടോൺസ് കൊടുക്കുക അതുപോലെതന്നെ ലൈറ്റ് ടോൺസ് കൊടുക്കുക അതുപോലെ ബാക്കി ഇതെല്ലാം ഇറെയസെറ് ചെയ്ത് ഇറെയ്സ് ചെയ്തിട്ടാണ് നമ്മൾ ചിത്രം വരച്ച് പൂർത്തിയാക്കാറ്